കളികൾ ആളുകളുടെ ജീവിതനിലവാരത്തെ മൊത്തമായി മാറ്റുവാനും അവരുടെ മാനസികവും ശാരീരിവുമായ ഉല്ലാസത്തെ വർധിപ്പിക്കുന്നതിനും വളരെ സ്വാധീനിക്കുന്ന ഒന്നാണ് കായികമായിട്ട് ഉള്ള കളികളുണ്ട് മാനസികമായ ഉല്ലാസം ലഭിക്കുന്ന കളികളുണ്ട് ശാരീരികമായ കളികൾ അതായത് ഉല്ലാസം ലഭിക്കുന്നതിനുവേണ്ടിയിട്ടുള്ള കളികള് നമ്മള് ശാരീരികമായ നമ്മള് ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനെ നിരവധി കളികളുണ്ട് അതൊക്കെ എന്നു പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുമൊക്കെ നമുക്ക് ഉല്ലാസം ലഭിക്കും നമ്മളുടെ ആരോഗ്യപ്രശ്നങ്ങളെ അത് ക്രമീകരിക്കുന്നതിനും അതുപോലെതന്നെ നമ്മുടെ ജീവിതനിലവാരത്തെ ഉയർത്തുന്നതിനുമൊക്കെ ഈ കളികൾ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ജീവിതത്തില് നമ്മള് കളികൾ നമ്മുടെ ജീവിതരീതിയെത്തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ചിലരുടെ വ്യായാമ മങ്ങള് ഇല്ലങ്കിൽ പോലും അതായത് ഓരോ ദിവസങ്ങളിലുള്ള എക്സസൈസ് ജീവിത രീതികളില് വ്യതിയാനം വരുത്തുന്ന ഒന്നാണ് അതുപൊലെതന്നെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ കളികളും മാനസികമായിട്ട് ഉല്ലാസം ലഭിക്കുന്ന ഇപ്പോള് നിലവിലിപ്പോള് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു മൊബൈലിലൂടെ ഉല്ലാസം കണ്ടെത്തുന്ന അല്ലെങ്കില് മൊബൈൽ ഗെയ്മുകള് അതിന് മനുഷ്യൻ അടിമപ്പെട്ട് ഇരിക്കയാണ് ഈ കാലഘട്ടത്തില് ഈ കാലഘട്ടത്തിലൊക്കെയെന്നു പറഞ്ഞുകഴിഞ്ഞാല് അതുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെയധികം കൂടുന്നതും നമുക്ക് ശാരീരികമായുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതൊക്കെ അതിനെ ഒഴിവാക്കാൻ ഈ കളികള് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പഴയ കാലങ്ങളിലൊക്കെയാണെങ്കില് ഈ കളികളാണ് മനുഷ്യൻ്റെ ജീവിത ശൈലീ രോഗങ്ങളെയൊക്കെ കുറയ്ക്കുന്നതിനോ അല്ലെങ്കില് അങ്ങനെ ഉണ്ടായിട്ട് ഉള്ളതായിട്ടുപോലും അറിവില്ല അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ നിലകളില് വ്യത്യാസം വരുത്തും അത് നമ്മുടെ ജീവിതശൈലീരോഗങ്ങളെ അകറ്റുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ കളികൾ മുഖേന നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അത് ആളുകളുടെ ജീവിതനിലവാരത്തെ ഉയർത്തിക്കാട്ടുന്നതിനും മാനസികമായും ഉല്ലാസം പ്രാപിക്കുന്നതിനും ഏറ്റവും വളരെ നല്ല ഒന്നാണ് അതുകൊണ്ട് കളികൾ എപ്പോഴും ജീവിതനിലവാരത്തെ സ്വാധീനിക്കുന്ന ഒന്നുതന്നെയാണ്